നാട്ടു വൈദ്യത്തെപ്പറ്റി എനിക്ക് പ്രത്യേകിച്ച് വലിയ അറിവൊന്നുമില്ല കാര്യം ഞാൻ ചെറുപ്പം മുതലേ അതായത് പണ്ടു മുതലേ എൻ്റെ വീട്ടുകാരും എൻ്റപ്പനും അമ്മയുമെല്ലാം പോകുന്നതും അല്ലാത്തൊരു മോഡേൺ ഡോക്റ്റേഴ്സിനടുത്താണ് പോകുന്നത് അല്ലാതെ ഈ വൈദ്യൻ്റേത് വൈദ്യൻ്റടുത്ത് അങ്ങനെയൊന്നും പോയിട്ട് ശീലിച്ചിട്ടില്ല ജസ്റ്റ് കേട്ടറിവ് മാത്രമേ ഉണ്ടാവുന്നുള്ളു പണ്ട് പണ്ടൊക്കെയെന്തെങ്കിലും അസുഖം വരുമ്പം നാട്ടു വൈദ്ധ്യന്മാരുടെ അടുത്താണ് പോയിക്കോണ്ടിരുന്നത് ഗ്രാമങ്ങളിലാണ് പോയ്ക്കൊണ്ടിരുന്നത് ഗ്രാമങ്ങളിലൊക്കെ ഒരു ഒരു ഒരു നാട്ടു മരുന്നാണ് ആ ഗ്രാമത്തിലുള്ള എല്ലാവരും അങ്ങോട്ടൊക്കെയായിരിക്കും പോകുന്നത് എന്നൊക്കെ കേട്ടുകേൾവി മാത്രമേയുള്ളൂ അല്ലാതെ എനിക്ക് പേഴ്സണലി അങ്ങനെയൊരു അനുഭവമില്ല